ഞാനിപ്പോൾ ഈ സ്വിഗ്ഗില് എൻ്റെ ഓർഡറൊക്കെ ഓട്ടോ പേ ആ ഓട്ടോ പേ ആക്കി ഇട്ടേക്കുവാ പക്ഷേ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ അത്രേം പൈസ ഇല്ല അതുകൊണ്ട് ഈ ഒരു ഓട്ടോ പേ എന്നുള്ള ആ ഒരു ഇത് റദ്ദ് റദ്ദ് ചെയ്തു കളഞെക്കുവാണ് അതൊന്ന് മാറ്റി തരാവോ ആ പേയ്മെൻറ് ഓപ്ഷൻ ആ പേയ്മെൻറ് ഓപ്ഷൻ എടുത്ത് എൻ്റെ ഓട്ടോ പേ ഒന്ന് ഓട്ടോ പേ ഫീച്ചർ ഒന്ന് റദ്ദ് ആക്കി ഒന്ന് മാറ്റി തരണം കാരണം ഇപ്പോൾ എനിക്ക് സ്വി ഇത് ഉപയോഗിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിനല്ല ഞാനുള്ളത് അപ്പോൾ ലൊക്കേഷൻ്റെ ഇത് ഡെലിവറബിൾ അല്ല അതുകൊണ്ട് എൻ്റെ ഓട്ടോ പേ ഒന്ന് ചെയ്ഞ്ച് ചെയ്ത് തരണം